ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാമ് ഞാൻ എവിടെ നിന്നും എവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനത് അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കാരണം അതിൽ ആ ഈ എന്തിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഞാൻ ഇതിൽ കണ്ടിട്ട് നമ്മള് സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റോറി ആക്കിയാണെങ്കിലും നമ്മള് എന്ത് ആക്കിയാണെങ്കിലും എന്താണ് ഇത് കണ്ടിട്ട് നമുക്ക് റീപ്ലേ വരുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ആ തൻ്റെ ഫോട്ടോ തൻ്റെ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ തൻ്റെ ഫോട്ടോയിൽ തൻ്റെ ചിരി നല്ല ഭംഗിയുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖം മനസ്സിന് ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലായിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുള്ളത് പിന്നെ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസായിട്ട് പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല എന്നാൽ ഞാൻ ഈ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഞാൻ ഓരോ നടിമാരുടെ ഫോട്ടോസ് അതും ഇതുമൊക്കെ കാണാറുണ്ട് അതിൽ ഫേസ്ബുക്കിൽ എനിക്ക് ആകെ രണ്ട് മൂന്ന് പോസ്റ്റേ ഉള്ളൂ ഇൻസ്റ്റഗ്രാമിലായിട്ട് ആണ് എനിക്ക് കൂടുതൽ അടുപ്പമുള്ളത് എന്നാൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമെന്ന് വച്ചാൽ അവർ ഇത് കാണുമ്പോൾ നമ്മളെ അത്രയും നല്ലോണം പുകഴ്ത്തുന്ന ഒരു ഫീൽ നമ്മൾക്ക് ഉണ്ട് അപ്പോൾ അത്കൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏട്ടന്മാരായാലും ആരായാലും എനിക്ക് കമേൻ്റ് എൻ്റെ ഫോട്ടോയുടെ അടിയിൽ തൻ്റെ ചിരിയെല്ലാം ഭംഗിയുണ്ട് അല്ലേ തൻ്റെ കണ്ണ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഒക്കെ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് വരുമ്പോൾ വളരെ സന്തോഷം തോന്നും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇൻസ്റ്റഗ്രാമിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമൂഹമാധ്യമം എന്ന് വച്ചാൽ എന്താണ് ഇൻസ്റ്റഗ്രാമാണ് അതിൽ എനിക്ക് ഫോട്ടോസാണ് ഞാൻ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളത്